ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ അടുത്ത് നടന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നടന്നതല്ല എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇവൻ്റിൽ ഉള്ളത് തന്നെയാണിത് ആഹ് എനിക്ക് ഇങ്ങനെയൊരു തെറ്റെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്ത് വന്ന കാര്യം ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാനൊരു ആഹ് ടെക്സ്റ്റയിലിൽ ഇവിടെ ഹോം ടൗണിൽ തന്നെയുള്ള ഒരു ടെക്സ്റ്റയിലിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിന്ന ടൈമിൽ അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ള ഒരു സീസണാണ് അതെന്നാൽ എനിക്ക് തോന്നുന്നു ഒരു ഫെസ്റ്റിവൽ ടൈം ആണെന്ന് തോന്നുന്നു അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് സെയിൽസ് ഗേൾസും കൂടുതലുണ്ട് എന്നാലും അതൊരു വലിയ കട തന്നെയാണ് അപ്പം സെയിൽസ് ഗേൾസ് കൂടുതലുണ്ട് പക്ഷെ ഈ ഫെസ്റ്റിവൽ ടൈം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും തിരക്കായിരിക്കുമല്ലോ ഒരു ഷോപ്പിൽ അപ്പോൾ എൻ്റെ സൈഡിൽ വന്നിട്ട് ഞാനൊരു സൈഡിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ സൈഡിൽ അത്യാവശ്യം കുറേ കസ്റ്റമേർസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേണം അവരെ ഹേൻ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെസ്റ്റിവൽ സീസണായതുകൊണ്ട് തന്നെ ബില്ലിംഗ് സെക്ഷനിലും ആൾക്കാർ കുറവാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവരും സെയിൽസിനൊക്കെ ഇങ്ങനെ എല്ലാത്തിലും നമ്മളെ സഹകരിക്കുന്ന ടീംസായിരുന്നു അപ്പം എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഭാഗത്തു നിന്നിട്ട് ഞാൻ തന്നെ വേണം ഇവർക്ക് എടുക്കുന്ന ഡ്രെസ്സെല്ലാം ഇങ്ങനെ കൊണ്ടുപോയിട്ട് പാക്കിങ്ങ് പാക്ക് ചെയ്തിട്ട് കൊടുക്കാൻ ക്യാഷ് മാത്രം വേറൊരു സെക്ഷൻകാർ കൊടുക്കും അപ്പം എൻ്റെ ഒരു സൈഡ് തന്നെ ഒരു അഞ്ചാറ് ഫാമിലി ഉണ്ടായിരുന്നു അപ്പം ഒരു രണ്ട് ഫാമിലീസ് ആഹ് രണ്ട് ഫാമിലീസ് എന്നെ ഞാൻ അവർക്ക് ഡ്രെസ്സെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഫാമിലിയിൽ ഒരു ആ ഒരു ഫാമിലിക്ക് മൊത്തം അവർ ഡ്രെസ്സെടുത്തു ഡ്രെസ്സെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ വേണല്ലോ ഇത് പേക്കിങ്ങ് ചെയ്യാനും ഒക്കെ സെറ്റ് ചെയ്യാനും അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ബാസ്കറ്റിൽ ഇട്ടിട്ട് അവിടെ വച്ചു ബാക്കിയെല്ലാവരും ആ ബാക്കി അടുത്ത ഫാമിലീൻ്റെ ആക്കി അപ്പോൾ ഇവർക്ക് പോവാൻ തിരക്കുള്ളതുകൊണ്ട് ഞാൻ അത് പാക്കിങ്ങ് സെക്ഷനിലേക്ക് വന്നു അപ്പോൾ രണ്ട് ഫാമിലീൻ്റെ ഡ്രസ്സ് എനിക്ക് പാക്ക് ചെയ്യണം അപ്പം ഞാൻ പാക്ക് ചെയ്തു പക്ഷെ ബില്ല് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുത്തപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മാറിപ്പോയി ദെൻ ഈവനിംഗ് ആയപ്പോഴത്തേക്കും ഇവർ വന്നു ആ ഒരു ഫാമിലി വന്നു ഒരു ഫാമിലി വന്നിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞു മാറിപ്പോയിയെന്ന് അവരത്രയും നല്ല മാന്യമായ രീതിയിലാണ് കേട്ടോ പറഞ്ഞത് അപ്പം മാറിപ്പോയിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറെ സോറി പറഞ്ഞു അവരുടെ അടുത്ത് ചേട്ടാ തെറ്റ് പറ്റിപ്പോയി അതിപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ മറ്റേ ആളുടെ അടുത്താണെങ്കിലും ഞാൻ കുറേ പറഞ്ഞ് കൺവീൻസ് ചെയ്തു മറ്റേ ആൾ ഭയങ്കര റോങ്ങ് അടിച്ചിട്ടാണ് പറഞ്ഞത് കാരണം ആ തിരക്ക് അത്രയും തിരക്ക് ഉണ്ടായിരുന്നു ഞാൻ അത്രയും ഫാമിലീനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നൊരു ലൈക്ക് അതൊന്നും ചിന്തിക്കാണ്ട് എന്താ പറയുക അവർക്ക് പെട്ടന്ന് അവരുടെ തുണി ഞാൻ മാറ്റിക്കൊടുത്തു അവരുടെ ഞാൻ വേറെയാണ് കൊടുത്തത് അപ്പോൾ അവർ ആ ഒരു ചിന്ത വച്ചിട്ട് എന്നെ കുറെ ചീത്ത പറഞ്ഞു വഴക്കു പറഞ്ഞു എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് അവർ എന്നെ വഴക്ക് പറഞ്ഞു അപ്പം ഞാൻ അവരുടെ അടുത്ത് കുറെ സോറി പറഞ്ഞു ഇനിയിങ്ങനെ ആവർത്തിക്കത്തില്ല അതോടുകൂടി എൻ്റെ ജോലി പോയി കേട്ടോ അവിടെ നിന്ന് ആ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞു കാരണം ആ കസ്റ്റമർ വന്നിട്ട് ഇനി പറയാനൊരു ചീത്ത വാക്കില്ല അങ്ങനെയെല്ലാം പറഞ്ഞു അത് ലാസ്റ്റ് ഓണറിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഷോപ്പിൻ്റെ ഓണറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്തു സെയിൽസ് ഗേൾ ഇങ്ങനെ ചെയ്തു ഒരാളുടെ അടുത്തു നിന്ന് അപ്പോൾ ഞാൻ ആ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പോലും തെറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഭാഗത്താണല്ലോ അപ്പം എനിക്ക് അവിടെ ഒന്നും പറയാനുള്ളൊരു വോയ്സ് ഇല്ലെന്ന് എനിക്ക് അറിയാം പക്ഷെ ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനിടയായി അപ്പോൾ ഞാൻ ആ സാറിനെ കുറെ കൺവീൻസ് ചെയ്തു അവർക്ക് അതിനു വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് ഞാൻ വേറെ എക്സ്ട്രാ അതിനകത്തേക്ക് ഈയൊരു തെറ്റിന് എക്സ്ട്ര ഒരു ഡ്രെസ്സും കൂടി ഞാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ തരാമെന്നും പറഞ്ഞു എൻ്റെ ക്യാഷും ഞാൻ തരാം അത് കുഴപ്പമില്ലെന്നും പറഞ്ഞു അപ്പം എനിക്ക് അവര് ആദ്യമൊന്നും ഒരു ഇതായില്ല പിന്നെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കേ എന്നാൽപ്പിന്നെ എൻ്റെ കയ്യിൽ നിന്നൊരു പൈസ എടുത്തിട്ട് അവർക്ക് ഇതാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഈ ഒരു ഇവെൻ്റ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നമുക്കത് മറക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ കൺവീൻസ് ചെയ്ത് അവരെ കൺവീൻസ് ചെയ്തത്